എനിക്ക് പാചകം വളരെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്ന പാചകങ്ങളെല്ലാം വളരെ ഭംഗിയോടെ വളരെ ആസ്വദിച്ച് ചെയ്യുന്ന ചെയ്യുകയാണ് സാധാരണ ചെയ്യാറുള്ളത് എൻ ഞാൻ ഉണ്ടാക്കിയതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാം ഏറെ ഇഷ്ടപ്പെട്ടത് ബിരിയാണികളാണ് ഞാൻ വ വള വളരെയധികം ബിരിയാണികൾ ഉണ്ടാക്കിയിട്ടുണ്ട് പല പല വെറൈറ്റി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് തരം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഇപ്പം പറയാൻ പോകുന്നത് ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ആദ്യം ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ആദ്യം ചെയ്യാൻ ഉള്ളത് അരി വേവിക്കണം അരി നല്ല രീതിയിൽ നമ്മളെത്രയാണോ എടുക്കുന്നത് ഓരോ ഓരോ ആൾക്കാർക്കും ഓരോ ഇതുണ്ടല്ലോ എത്ര അംഗങ്ങളുണ്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇതനുസരിച്ച് ആദ്യം അരി നല്ല രീതിയിൽ ഒരു രണ്ടോ രണ്ട് നാഴിയോ മൂന്നോ ഇഷ്ടമുള്ളത് അത്രയും എടുത്ത് ആദ്യം അരി വേവിച്ച് മാറ്റി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യാനുള്ളത് നമ്മുടെ ചിക്കൻ്റെ പ്രവാ ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴുകി ചിക്കനുള്ള മസാലയും കാര്യങ്ങളും ചേർത്തേക്കാം ആദ്യം മുളകുപൊടി ആവശ്യത്തിന് മുളകുപൊടി ചിക്കൻ എത്ര കിലോ ഉണ്ടോ അതിനനുസരിച്ച് ആവശ്യത്തിന് മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം നല്ല രീതിക്ക് ആവശ്യത്തിന് വിനാഗരി ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് സോട്ട് ചെയ്ത് നല്ല രീതിക്കാക്കി വയ്ക്കണം അതിനകത്തോട്ട് ചിക്കൻ ഇടുക എന്നിട്ട് കുരുമുളകും നമ്മൾ ചതച്ച കുരുമുളകും ഇതെല്ലാം ഇട്ട് റെഡി ആക്കി മസാല ചേർത്ത് മാറ്റി വയ്ക്കാം എന്നിട്ട് അത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ചിക്കൻ കറി വയ്ക്കാവുന്നതാണ് ആദ്യം ഒരു പാൻ എടുത്ത് അതിനകത്ത് കുറച്ച് എണ്ണ കടുക് വേണമെങ്കിൽ വേണ്ടവർക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് അതിൻ്റെ കടുകിൻ്റെ കൂടെ ഒന്ന് ഇതാക്കി പൊട്ടിച്ചെടുക്കാം അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം മസാല ചേർക്കണം ചെറിയൊരു മസാല അത് എൻ്റെ മാത്രം ഒരു സീക്രട്ട് മസാലയാണ് മുളക് പൊടിയും ചിക്കൻ മസാലയും ഇത്രയും ചേർത്ത് അതിനെയും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ആദ്യം നമ്മൾ വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും അത് എന്താണ് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം നല്ല രീതിയെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എത്രത്തോളം ഉള്ളി വഴണ്ട് വരുമോ അത്രത്തോളം കറിക്ക് രുചി കൂടുമെന്നാണ് പഴമക്കാർ പറഞ്ഞിട്ടുള്ളതും വീട്ടിലുകൾ കേട്ടിട്ടുള്ളതും അങ്ങനെയാണ് അങ്ങനെ എന്ത് ചെയ്യണം ഉള്ളിയെ നമുക്ക് നല്ല രീതിക്ക് വഴറ്റിയെടുക്കണം നല്ല ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിന് മുളക് ഒരു രണ്ട് മൂന്ന് കീറിയ മുളക് ഇടുക മുളക് ഇട്ടിട്ട് എന്താണ് നമ്മൾ ചെയ്യുക എന്നറിയുമോ തക്കാളി ഒരു രണ്ട് വലിയ തക്കാളി എടുക്കുക അതിനെയും സൈഡ് സ്ലൈഡ് സ്ലൈഡ് ആയിട്ട് കീറി ഇടുക എന്നിട്ട് അതെന്താണ് നല്ല രീതിയിൽ അത് എല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോളത്തേന് നമ്മൾ വേറൊരു മസാല ചേർക്കുക അപ്പോഴത്തെന് നമ്മുടെ ഈ മസാലകൾ നേരത്തെ ഇട്ട മസാലയും എല്ലാം കൂടെ ആകുമ്പോൾ വേറൊരു ടേസ്റ്റ് ഒരു മണം തന്നെ വരും എന്നിട്ട് നമ്മൾ എന്തുചെയ്യണം മസാല ഇട്ടല്ലോ നല്ല രീതിക്ക് ഇട്ട് ചിക്കൻ കൂടി ഒഴി ഇട്ട് വയ്ക്കാം ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ മല്ലിയില ഇടുക മല്ലിയില ഇട്ട് കറിവേപ്പില അങ്ങനെ ചിക്കൻ കറിക്ക് ഇടില്ല എങ്കിലും ചില നാട്ടിൽ ചിക്കൻ എന്താണ് കറിവേപ്പില ഇടുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട് ചില നാടുകളിലൊക്കെ പോണതല്ലേ അങ്ങനെയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ അടച്ച് വയ്ക്കുക അങ്ങനെ കുറേ കുറച്ച് കഴിഞ്ഞ് ഒരു പത്തിരുപത്തിയഞ്ച് ചിക്കൻ വേവുന്ന സമയം നമുക്കറിയാമല്ലോ അതത്രയും കഴിഞ്ഞിട്ട് നമ്മൾ എന്തുചെയ്യണം ചിക്കൻ ഒന്ന് അത് നോക്കുമ്പോൾ എന്തെങ്കിലും ഉപ്പോ ആ ഇതൊക്കെ കുറഞ്ഞിട്ടുണ്ടോ എല്ലാകാര്യങ്ങളും നോക്കിയിട്ട് നല്ല രീതിയിൽ കുറുകി ചിക്കൻ എങ്ങനെയാണോ നമുക്ക് കുറുകി നല്ല സാധാരണ രീതി കിട്ടില്ലേ അതുപോലെ എടുത്ത് മാറ്റി അങ്ങ് വയ്ക്കുക അതു കഴിഞ്ഞിട്ട് നമുക്ക് അരിയുടെ കാര്യം നോക്കാം നമ്മൾ അരിയെന്താണ് എങ്ങനെയാണ് തിളപ്പിച്ച് വയ്ക്കുന്നതെന്ന് വെച്ചാൽ ആദ്യമൊരു ഇത് എടുക്കുക കലമോ പാനോ എന്തായാലും എടുക്കുക എടുത്തിട്ട് നമ്മൾ എന്തുചെയ്യണ ആദ്യം കുറച്ച് ആവശ്യത്തിന് എത്ര കിലോ അരിയാണോ ഇടുന്നത് അതിന് പകുതി എടുത്ത് വെള്ളമൊഴിച്ച് വയ്ക്കുക അതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക ചിലർക്ക് നെയ്യാണ് നെയ്യ് വരുമ്പം ഒട്ടിപിടിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അരി നെയ്യ് ഒഴിക്കുക നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടുക ഇത് നന്നായിട്ട് ഇളക്കി അതിന് വെള്ളവും ഉപ്പും എന്താണ് വെള്ളവും ഉപ്പും നെയ്യും കൂടെ നല്ല രീതിയിൽ ഒന്ന് ഇതായി വരമ്പോഴത്തേനും അരി കഴുകി എത്രയാണോ ആ അത്രയും അരി കഴുകി അതിനകത്ത് ഇടുക ഇട്ടിട്ട് എന്താണ് അതൊന്ന് അടച്ച് വയ്ക്കുക ഒരു നല്ല ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് അത്രയും വേണ്ട നല്ല തീയാണെങ്കിൽ ചോറ് നല്ല രീതിയിൽ കിട്ടും എന്നിട്ട് എന്ത് ചെയ്യുക അരി നമ്മൾ വേവിച്ചെടുക്കുക നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ട് അതിനെ ഒന്ന് മാറ്റി വയ്ക്കുക മാറ്റി വെച്ചിട്ട് വേറൊരു ചെറിയൊരു ഇതിനകത്ത് എന്താണ് ചീനച്ചട്ടിയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പിടുക ആദ്യം അണ്ടിപ്പരിപ്പിനെ വഴറ്റിയെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുന്തിരിങ്ങ അതിനെയും നമ്മൾ നല്ല രീതിയിൽ വഴറ്റിയെടുത്ത് മാറ്റി വയ്ക്കുക പിന്നെ ഒരു ഉള്ളിയെ നമ്മൾ സ്ലൈഡ് സ്ലൈഡ് ആയിട്ട് അരിഞ്ഞ് അതിനെയും നമ്മൾ നല്ല രീതിക്ക് എന്താണ് വഴറ്റി എടുത്ത് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു വേറെ ഒരു വലിയ പാൻ പാനോ ഇനി നമ്മൾ ഏതിനകത്താണോ നമ്മുടെ ബിരിയാണി ഇതാക്കി വയ്ക്കുന്നത് അതിനകത്തോട്ട് നമ്മളെടുത്തിട്ട് ആദ്യം നമ്മൾ ബിരിയാണി അരി കുറച്ച് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് അത് അതിൻ്റെ നടുക്ക് ഭാഗത്ത് നമ്മൾ എന്താണ് നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ നല്ല രീതിക്ക് നല്ല രീതിയിൽ നമ്മൾ റെഡി ആക്കി വെച്ച സാധനം നമ്മൾ നല്ല രീതിയിൽ അത് റെഡി ആക്കി എടുത്തിട്ട് അതിന്റെ മുകളിൽ പിന്നെയും നമ്മൾ എന്ത് ചെയ്യുക ബിരിയാണി അരി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചെറിയ യിട്ട് സ്ലൈഡ് ആയിട്ട് അരിഞ്ഞ നമ്മുടെ വഴറ്റി വെച്ച ഉള്ളിയും എല്ലാം നല്ല രീതിക്ക് നമ്മൾ ഇട്ട് എടുത്തിട്ട് വേണമെങ്കിൽ കുറച്ച് മല്ലിയില അതാണ് നമ്മൾ സാദാ നോർമ്മൽ ആയിട്ട് വയ്ക്കുന്ന ബിരിയാണി ഈ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇത് മാത്രമല്ല വേറെ ഐറ്റംസ് മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അച്ചാറ് ഐറ്റംസ് എല്ലാം എൻ്റെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാണ് നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് ഇതാണ് എൻ്റെ ഇത്